ഇപ്പോൾ എനിക്ക് പ്രിയങ്കരനായിട്ടുള്ള മലയാളി എഴുത്തുകാര് ഇഷ്ടംപോലെ ഉണ്ട് അത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒ എൻ വി കുറുപ്പ് പിന്നെ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ പിതാവായിട്ടാണ് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് പറയാൻ ആണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട് നമ്മളുടെ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം ഒ എൻ വി കുറിപ്പ് ഒ എൻ വി കുറിപ്പിൻ്റെ പലതരം കവിതകളും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മള് സ്കൂളിൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാകും പിന്നെ മാധവികുട്ടി മാധവികുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ എഴുതുന്നൊരു പ്രിയ പ്രിയങ്കരിയായിട്ടുള്ള ഒരു കവി കവിയാണ് പിന്നെ പല ഒ എൻ ഒ എൻ ചന്ദു മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വ്യക്തി ഉണ്ട് അപ്പോൾ പുള്ളിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള കവിതകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള കവിതകളാണ് അപ്പോൾ നമുക്കത് സ്കൂളുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ കവിതകളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവുക അല്ലാണ്ടുള്ള നോവല് കാര്യങ്ങളൊന്നും നമ്മള് വലിയ രീതിയിലുള്ള വായിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പം ഇതൊക്കെ മെയിനായിട്ടൊക്കെ നമ്മള് വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആയിരിക്കും അപ്പം അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്